ഇപ്പോൾ വയനാട്ടിൽ വിനോദസഞ്ചാരം എന്ന് പറയുന്നതൊരു മെയിൻ ഒരു അവരുടെ എല്ലാ ആൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ഉപജീവന മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ടൂറിസ്റ്റ് പ്ലെയിസുകൾക്ക് ഭയങ്കര ഡിമാന്റും കാര്യങ്ങളുമാണ് അത്പോലെ എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും ടൂറിസ്റ്റ് ഗൈഡുകളും കാര്യങ്ങളും ഏജൻസികളും കാര്യങ്ങളൊക്കെയായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും ആ നാടിന്റെ പ്രത്യേകതയും അവിടെ കാണാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അതിന് എന്തൊക്കെയാണ് പ്രത്യേതകൾ അത് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് പോവേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതടക്കം എല്ലാ കാര്യങ്ങളും അറിയാം ആൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇംഗ്ലീഷ് കാര്യങ്ങൾ അറിയുന്നവരായിരിക്കും തമിഴ് മലയാളം കന്നഡ അങ്ങനെ ആൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും തന്നെ എല്ലാവർക്കും അറിയാം ആൾമോസ്റ്റ് ഡിപ്പെന്റബിളായിട്ട് എല്ലാം അവരും എല്ലാ ലാംഗ്വേജും തന്നെ പറയാനും പിന്നെ ഇപ്പോൾ മെയിൻ ആയിട്ട് ആണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ് മെയിൻ ആയിട്ട് എല്ലാവരും തന്നെ കാരണം അത്രയും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ തേടിപ്പിടിച്ച് വരുന്നതുകൊണ്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അതിനനുസരിച്ചുള്ള ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ എല്ലാവരും പഠിച്ച് വച്ചിരിക്കുന്ന ആൾക്കാരാണ്